ആരോഗ്യ സംരക്ഷണം ഗതാഗതം വിദ്യാഭ്യാസം അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗരന് നിർബന്ധമായിട്ടും കിട്ടേണ്ട ആവശ്യങ്ങളാണ് അതായത് ഇതിപ്പം ഗ്രാമത്തിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും ഇതൊക്കെ മികച്ചതാക്കാൻ സർക്കാർ നല്ലവണ്ണം നല്ല രീതിയിൽ സഹായിക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം സർക്കാർ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് സഹായം സഹായം ഒന്നും കിട്ടുന്നില്ലയെന്നു നമുക്ക് പറയാൻ പറ്റില്ല ഈ എസ് സി എസ് ടി അതായത് എസ് സി എസ് ടി കുട്ടികൾക്ക് ഗ്രാൻഡ് പിന്നെ അതുപോലെ തന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീയായിട്ട് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുച്ഛമായ പൈസയൊക്കെ മേടിക്കുന്നുള്ളൂ സർക്കാർ നമ്മളുടെയടുത്ത് നിന്ന് പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ശേ ശരിക്കും സർക്കാരറിയാണ്ട് പോകുന്ന ഒരുപാട് പൈസയില്ലാത്ത കുട്ടികളൊരുപാടുണ്ട് ഈ എസ് സി എസ് ടി കുട്ടിക്ക് ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെതന്നെയാണ് ഈ പാവപ്പെട്ട കുട്ടികൾക്കും അവരെ അറിഞ്ഞ് അവർക്കും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കും പിന്നെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ സർക്കാർ നൽകുന്നുണ്ട് അതായത് സർക്കാർ സ്കൂളുകളിലെ സ്കോളർഷിപ്പ് കാര്യങ്ങളെല്ലാം സർക്കാർ നൽകുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്നും ഇനിയും മെച്ചപ്പെട്ട സഹായങ്ങൾ ഇനിയും ലഭിക്കണമെന്നാണ് എന്റൊരഭിപ്രായം